ഹലോ സൗത്ത് ഇന്ത്യൻ ബാങ്കല്ലേ ഞാൻ അവിടെ അക്കൗണ്ടുള്ള ഒരു ആളാണ് എൻ്റെ പേര് ഷീന എന്നാണ് എൻ്റെ പാൻ കാഡ് നക്ഷ്ടപെട്ടു പോയി ഞാൻ അവിടെ നിന്നായിരുന്നു ആദ്യം നേരത്തെ എടുത്തത് നിങ്ങടെ ബാങ്കിൽ നിന്ന് അപ്ലൈ ചെയ്താണ് പാൻ കാർഡെടുത്തിരുന്നത് പക്ഷേ അത് എനിക്ക് ഒരു യാത്രയ്ക്ക് ഇടയിൽ അത് എൻ്റെ കൈയ്യിൽ നിന്ന് നഷ്ടമായിപ്പോയി ഇനി ഇപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതെനിക്ക് തിരിച്ചു വേറെ ഒരു പാൻ കാഡ് പുതിയതായിട്ട് കിട്ടുവാണോ അതോ എങ്ങനെയാണ് പഴയ കാർഡിൻ്റെ എന്തെങ്കിലും വച്ചു എടുക്കാൻ പറ്റുമോ സെയിം നമ്പറിലോ അങ്ങനെ എന്തേലും അതോ പുതിയതായിട്ട് എടുക്കണോ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് അത് അപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ ബാങ്കിലാണോ അതോ ഇനിയും അക്ഷയ വഴി ഓൺലൈൻ ആണോ അതിനെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എനിക്ക് കാരണം നഷ്ടപെട്ടു പാൻ കാഡ് നഷ്ടപ്പെട്ടു നമുക്ക് ഇനിയും പാൻ കാഡ് വേണമല്ലോ ഒത്തിരി ട്രാൻസാക്ഷൻസൊക്കെ ഉള്ളതാണേ നിങ്ങളുടെ ബാങ്ക് വഴിയേ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്നതാണ്

ഞാൻ അക്ഷയയിൽ അപേക്ഷ കൊടുത്താൽ മതിയോ അക്ഷയയിൽ പോകുമ്പം ഞാൻ എന്തൊക്കെയാണ് കൊണ്ട് പോകേണ്ടത് നമ്മുടെ പാസ്ബുക്കിൻ്റെ വല്ല ഇതും കൊണ്ട് ചെല്ലണോ അക്കൗണ്ട് നമ്പറൊക്കെ വേണ്ടി വരുമോ അതോ ആധാറും ഫോട്ടോയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്ക മതിയോ അത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞൂ തരുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തേലും ഏതേലും രീതിയിൽ എന്നെയൊന്ന് സഹായിക്കാൻ പറ്റുമോ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊന്നെനിക്ക് പറഞ്ഞ് തരുവായിരുന്നു വളരെ ഉപകാരമായിരുന്നു കാരണം പാൻ കാർഡൊക്കെ നഷ്ടപ്പെട്ടാൽ അത് പിന്നെ ഭാവിയിക്ക് ഒത്തിരി ആവശ്യമുള്ള കാര്യങ്ങളല്ലേ വേണ്ട എന്ന് വയ്ക്കാൻ പറ്റത്തില്ലലോ നമ്മൾക്ക് അതുകൊണ്ട് എനിക്ക് അത് എത്രയും പെട്ടെന്ന് പാൻ കാഡ് തിരിച്ചു വേണം കാരണം എനിക്ക് ഇനിയും ആവിശ്യങ്ങളുള്ളതാണ് ഒത്തിരി ട്രാൻസാക്ഷൻസും ഇനി യാത്രകളക്ക ചെയ്യുമ്പഴ്ത്തേക്ക്നും എനിക്ക് ആവിശ്യമുള്ളതാണ് എനിക്ക് അത്യാവിശ്യം ഒരിടം വരെ പോകുകയൊക്കെ വേണം പിന്നെ പിള്ളാർക്ക് പൈസ അയച്ചു കൊടുക്കേം പിള്ളാരിങ്ങോട്ട് അയച്ച് തെരുന്ന എടുക്ക്കേം അങ്ങനുള്ള പല കാര്യങ്ങളൊള്ളതാ അതൊണ്ട് എനിക്ക് പാൻ കാഡ് അത്യാവിശവാ അതിനു നഷ്ടപെട്ട് പോയത് തിരികെ എടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എവടാ അപേഷിക്കേണ്ടത് അത് അക്ഷയയിലാണോ എന്തൊക്കെയാണ് അയിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടത് എന്നൊക്കെ എനിക്ക് ഒന്ന് പറഞ്ഞു തരണേ